ഇപ്പോൾ വെള്ളമരിക്കാനും ശുദ്ധീകരിക്കാനുമൊക്കെ അതായത് എന്തൊക്കെ രീതികളാണ് പിന്തുടരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ അതായത് എന്റെ വീട്ടില് ഇതിപ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കാനും ശുദ്ധീകരിക്കാനും പ്രത്യേകിച്ചിട്ടുള്ള പ്യൂരിഫയർ കാര്യങ്ങള് അങ്ങനെയൊന്നുമില്ല ഞാനൊരു സാധാരണ വീട്ടില് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ വലിയ പൈസക്കാരും കാര്യങ്ങളൊന്നു അല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എന്റെ വീട്ടില് അങ്ങനെ അത് വലിയ വലിയ സംഭവം കാര്യങ്ങളൊന്നു ഇല്ല അപ്പോൾ ഞങ്ങള് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്ങ്കില് വലിയ ശുദ്ധ ശുദ്ധത കുറവുള്ള വെള്ളമൊന്നുമല്ല കിട്ടുന്നത് ഇപ്പോൾ കിണറ്റിൽ നിന്നാണെങ്കില് അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ ചില സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ ഈ കലക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതായത് കലങ്ങിയ വെള്ളം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കളര് വ്യത്യാസം ഒക്കെ ഉണ്ടെങ്കില് അതായത് പാത്രം കഴുകാനും തുണി അലക്കാനൊക്കെയും അത് തന്നെ യൂസ് ചെയ്യും പക്ഷെ കുടിക്കാനെടുക്കുമ്പോൾ അത് ഞങ്ങളെന്തു ചെയ്യും ഒരു വലിയൊരു ബക്കറ്റില് നിറച്ച് വയ്ക്കും നിറച്ച് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തലേ ദിവസം വയ്കുന്നേരം നിറച്ച് വയ്ക്കും അതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ ആവുമ്പോഴത്തേക്ക് അത് എന്തെകിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം അടിയിലേക്ക് അമര്ന്ന് പോകും അപ്പോൾ അടിയിലേക്ക് അമര്ന്ന് പോയിട്ട് തെളിഞ്ഞ വെള്ളമായിരിക്കും മേലെ അപ്പോൾ മേലത്തെ വെള്ളം മാത്രമെടുത്തിട്ട് ഞങ്ങള് പാചകം അതായത് പാചകങ്ങള് അതായത് ചായ വയ്ക്കുക കറി വയ്ക്കുക ചോറ് വയ്ക്കുക എന്തെങ്കിലും കടി ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യത്തിനൊക്കെ അങ്ങനത്തെ വെള്ളമാണ് യൂസ് ചെയ്യാറ്